ഞാൻ ബിന്ദു ജ്വല്ലറീന്നാണ് വിളിക്കുന്നത് ആ പറഞ്ഞോളു കരിമണി മാലയുണ്ട് കരിമണിമാലേടെ കുറെ കളക്ഷൻസ് വന്നിട്ടുണ്ട് താലി മാലേടെ കളക്ഷൻസ് കുറെ വന്നിട്ടുണ്ട് വളകൾതും ഉണ്ട് നിങ്ങൾക്കെങ്ങനത്തെ മോഡലാണ് വേണ്ടത് ആ മോഡൽ വേണമെങ്കിലവിടെ ആക്കിത്തരും പണിക്കൂലി ആറ് ശതമാനമേയുള്ളു പണിക്കൂലി ഞങ്ങൾ കുറഞ്ഞിട്ടാണ് എടുക്കുന്നത് ഡയമണ്ട് പ്യുവർ നയൻ വൺ സിക്സാണ് ആ മോഡൽനനുസരിച്ചിട്ട് നമ്മൾ മാക്സിമം ഞങ്ങൾ പണിക്കൂലി കുറച്ചിട്ടാണ് കൊടുക്കുന്നത് ഡാ ഡയമണ്ടിൻ്റെ കളക്ഷൻസുണ്ട് ലൈറ്റ് വെയിറ്റഡായിട്ടുള്ള ഡയമണ്ട് കളക്ഷൻ

പാദസരം ഇപ്പോൾ ലൈറ്റ് വേയിറ്റഡായിട്ടുള്ള പാദസരമൊക്കെ വന്നിട്ടുണ്ട് താങ്കൾക്ക് പറ്റുന്ന രീതീയിലുള്ള ഹയ് എല്ലാം ഉണ്ട് ബ്രേസ്ലെറ്റിൻ്റെ കളക്ഷൻസൊക്കെയുണ്ട് വള വളകളുടെ പുതിയ മോഡൽസുണ്ട് ഉണ്ട് ആ അപ്പോളൊക്കെ പുതിയ കളക്ഷൻസൊക്കെ വന്നിട്ടുണ്ടിവിടെ ലെയർ മാല ചെറിയ തൂക്കത്തിലക്കെ ഉള്ളതുണ്ട് നിങ്ങൾക്കെങ്ങനത്തെ രീതിയിലുള്ള കളക്ഷൻസാണ് വേണ്ടത് മാലയാണോ വളയാണോ ആ താങ്കൾക്ക് താങ്കൾ ഷോപ് ഷോപ്പിലേക്ക് വന്നോളു താങ്കൾക്കിഷ്ടപ്പെടും എന്തായാലും കുറെ കളക്ഷൻസൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങളെ വീടെവിടെയാണ് കാസർഗോഡാ എന്നാ ബിന്ദുലേക്ക് വരാൻ എളുപ്പമാണ് നിങ്ങൾക്ക് നാളന്നെ ഫാമിലിയായിട്ട് വന്നോളു അശ്വിനി നഗറ് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് മുമ്പത്തെയുള്ള സ്റ്റോപ്പ്

ഹൈ വേടെ സൈഡന്നെയാണ് പാർക്കിങ്ങ് സൗകര്യങ്ങളെല്ലാമുണ്ട് ആ ആ ശരി